ആ എൻ്റെ വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെടികൾ വളർത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന മണ്ണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ വീട്ടിലെ മണ്ണ് തന്നെയാണ് നമ്മൾ ആദ്യം അതിൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ഇത് വളരുമോ വളർച്ചക്ക് പ്രശ്നമുള്ളതാണോ അതോ ഓരോ മണ്ണിന് അതിന്റേതായ ഒരിതുണ്ടല്ലോ ഗുണങ്ങളുണ്ടല്ലോ അപ്പോൾ ചില ചെടികൾ വളരില്ല ചില ചെടികൾ അതിനകത്ത് പോവാനും അഴുകി പോവാനും നല്ല രീതിയിൽ വളരാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് തുടക്കത്തിൽ ഞങ്ങളൊന്ന് നോക്കിയായിരുന്നു എങ്ങനെ എല്ലാം ക അഴുക്കായി പോവുമോ എന്നൊക്കെ കാരണം നമ്മൾ പൈസ കൊടുത്താണ് ആദ്യം ചെടി വാങ്ങിത്തുടങ്ങിയത് അപ്പോൾ പിന്നെ എന്തോ നല്ലതായിട്ട് തന്നെ വളർന്നു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു വളർച്ചക്കൊന്നും പ്രശ്നമൊന്നുമില്ല പൂക്കളൊക്കെ നല്ല രീതിയിൽ തന്നെ റെഡി ആയിത്തുടങ്ങി ഇപ്പോൾ തൈയ്യൊക്കെ ഇട്ടാൽ തന്നെ പെട്ടെന്ന് വളർന്ന് നല്ല നല്ല രീതിയിൽ പൂക്കളൊക്കെ വരാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പം ഞങ്ങളിച്ചിരി കൂടെ വിപുലീകരിച്ച് തുടങ്ങിയപ്പോഴാണ് ആദ്യം ഒന്നും വളമൊന്നും യൂസ് ചെയ്തില്ലായിരുന്നു കാരണം നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ടായിരുന്നു പിന്നെ വേനൽക്കാലം ആവുമ്പോൾ മഴ വെള്ളത്തിന് പ്രശ്നമുണ്ടായിരുന്നു എന്നാലും തന്നെ ചില ചെടികൾ വളരും ചില ചെടികൾ വളരത്തില്ല മാക്സിമം ക നനച്ച് നമ്മൾ വേനൽക്കാലത്തും അത് നല്ല രീതിയിൽ തന്നെ വളർത്താൻ നോക്കി പിന്നെ വളം ആദ്യമൊന്നും യൂസ് ചെയ്യത്തില്ലായിരുന്നു പിന്നെ അതിൻ്റെ കൂടുതൽ ചെടികൾ നമ്മൾ അതിൽ നടാൻ തുടങ്ങിയപ്പോഴാണ് വളങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങിയത് അത് വീട്ടിലുള്ള ഇതൊക്കെ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ചാണകം പിന്നെ ചാരം അതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി നല്ല രീതിയിൽ അതൊക്കെ തന്നെ നല്ലൊരു വളം തന്നെയാണ് പിന്നെ ചെടികൾ വളർത്താൻ എ മീ നല്ല രീതിയിൽ വളരണമെങ്കിൽ വളം ഒക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നന്നായിട്ട് വരും പൂക്കളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വളർത്താൻ ഏറ്റവും നല്ല രീതിയിൽ വളരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ്